പാട്ടിലെ സാങ്കേതികമായ കാര്യങ്ങളെപ്പറ്റിയൊന്നും എല്ലാവർക്കും അത്ര അറിവുണ്ടാവണമെന്നില്ല കൂടുതലായിട്ടും പാട്ടില് നമ്മള് ഓ ഓരോ റിയാലിറ്റി ഷോകളൊക്കെ കാണുമ്പോള് നമുക്കതില് അതില് വന്ന് മ്യൂസിക് അറിയാവുന്നവര് ജെഡ്ജ്ജ് ചെയ്യുന്നവഴിയൊക്കെയാണ് നമ്മള് കൂടുതല് ഇതിന്റെ മ്യൂസിക്കിന്റെ സാങ്കേതികത്തെ സാങ്കത്തിക വശത്തെപ്പറ്റി മനസ്സിലാക്കാറുള്ളത് അതുപോലെതന്നെ പലതവണ മ്യൂസിക് കേള്ക്കുമ്പോഴും മറ്റുള്ള മ്യൂസിക് അറിയാവുന്ന ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുമൊക്കെയാണ് നമ്മള് കൂടുതലായിട്ടതിന്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങള് മനസ്സിലാക്കുന്നത് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നാറുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ ക്ലാസിക് സോങ്സ്സൊക്കെ ഒക്കെയാണെങ്കില് അതിന്റെ സംഗതികളും അതിന്റെ പിച്ചും അതുമൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് കൂടുതലായിട്ടും നമ്മള് പാട്ടുകള് മറ്റുള്ള നല്ല ഫെയ്മസായിട്ടുള്ള ആളുകള് പാടുന്നതും ഫേമസ് സിങ്ങേഴ്സിന്റെ ഒക്കെ പാട്ടുകള് പല തവണ കേൾക്കുകയും അത് അവരുടേതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുമൊക്കെ ചെയ്യുന്നത് വഴിയായിട്ട് നമുക്ക് ഈയൊരു പാട്ടിലെ സാങ്കേതിക വശത്തെപ്പറ്റി പഠിക്കാനും പ്രാവർത്തികമാക്കാനും സാധിക്കും പ്രത്യേകിച്ച് നമ്മള് പാട്ടൊക്കെ പഠിക്കുമ്പോള് ഒരു ടീച്ചറുള്ളത് നല്ലതായിരിക്കും അവരുടെ ഗൈഡൻസില് പഠിക്കുകയാണെങ്കില് നമുക്കീ കാര്യങ്ങള് കൂടുതലായിട്ട് മനസിലാക്കാനും അതുപോലെ നമ്മുടെ പ്രാക്റ്റീസില് കൂടുതലായിട്ട് കൊണ്ടുവരാനും സാധിക്കും പലവട്ടം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഒരു സോങ്ങ് പെർഫെക്റ്റായിട്ട് മാറാറുള്ളത് അത്പോലെ തന്നെയാണ് സോങ്ങിന്റെ സങ്കീർണതകളെ കൂടുതൽ ഓവറായി കാണാതെ അതിന്റെ ഫീല് കൊണ്ടുവരാനാണ് എല്ലാ സിങ്ങേഴ്സും ശ്രമിക്കേണ്ടത്